മഴക്കാലമാകുമ്പോൾ നമ്മളെ പിന്തുടരുന്ന കുറേ രോഗങ്ങളാണ് ഡെങ്കിപ്പനി മലേറിയ പോലുള്ള അസുഖങ്ങൾ അത് ഈ കൊതുകിൽനിന്നാണ് ഇത് ഉണ്ടാകുന്നത് അതുകൊണ്ട് നമുക്ക് അതിന് പ്രതിരോധിക്കാനെന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മുടെ പരിസരങ്ങളൊക്കെ എപ്പഴും വൃത്തിയായി സൂക്ഷിക്കുക പിന്നെ കൊതുക് വരാത്തക്ക രീതിയിലുള്ള മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുക പിന്നെ മറ്റ് ചിരട്ടകൾലും പ്രദേശങ്ങളിലൊക്കെ കിടക്കുന്ന ചിരട്ടകളിലും പാത്രങ്ങളിലൊക്കെ വെള്ളം കെട്ടിക്കിടക്കാതെ സൂക്ഷിക്കുക കൊതുകിനെ നിർമാർജ്ജനം ചെയ്യുന്ന രീതിയിലുള്ളത് ഒക്കെയുള്ള സമ്പ്രദായങ്ങൾ ഏർപ്പെടുത്തുക ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എപ്പഴും പരിസരങ്ങൾ വൃത്തിയായിട്ട് സൂക്ഷിക്കണം കൊതുകിനെ നിർമാർജ്ജനം ചെയ്യണം ഇതൊക്കെയാണ് ഡെങ്കിപ്പനി മലേറിയ ഒക്കെ വരുത്തുന്ന വരുന്ന രോഗങ്ങൾ വരുന്നത് പ്രതിരോധിക്കാൻ നമ്മൾ ചെയ്യേണ്ടത്